ഹലോ ഞാൻ നേരത്തെ നിങ്ങൾ ഭക്ഷണം ഓര്ഡറ്യ്ത ആളായിരുന്നെ ഞാനാ ഓർഡെറെയ്ത ഭക്ഷണം ഞാൻ തിരികെ ഇപ്പോള് നൽകിയിട്ടുണ്ട് ഞാൻ ഓർഡര് ചെയ്ത സാധനമല്ലല്ലോ നിങ്ങളതെനിക്ക് തിരിച്ചു തന്നത് ഞാൻ നാലു പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണൊല്ലായിരുന്നോ ഓർഡെര് ചെയ്തത് പക്ഷെ നിങ്ങൾ തന്നത് ഒരാൾക്ക് കഴിക്കാൻ പോലുമില്ലല്ലോ നിങ്ങൾ ഇങ്ങനാണോ ഇത് ചെയ്യുന്നത് നിങ്ങളിത്രയും വർഷം പ്രവർത്തിച്ച ഒരു ഹോട്ടലായതുകൊണ്ടല്ലേ ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ഓർഡെർ ചെയ്തത് നിങ്ങളിങ്ങനാണോ എൻ്റെട്ത്ത് കാണിക്കേണ്ടത് നല്ല ഫുഡ് തരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ നിങ്ങൾ പറഞ്ഞ എമൌണ്ട് പേ ചെയ്തിട്ടല്ലേ ഞാനത് ഓർഡെര് ചെയ്തത് അന്നേരം നിങ്ങളതിനനുസരിച്ച് വേണ്ടേ എൻ്റെയടുത്ത് ഇത് തിരിച്ചു പെരുമാറാനായിട്ട് നിങ്ങള് തന്ന ഭക്ഷണം നിങ്ങള് നിങ്ങളവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങള് ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ടോ ആദ്യമേ ആ ഫുഡ് നിങ്ങളൊന്ന് കഴിക്കണം കഴിച്ചിട്ട് വേണം ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് അത് തയ്യാറാക്കാന് നിങ്ങള്ക്കത് പോലും അറിഞ്ഞുകൂടെങ്കില് പിന്നെന്തിനാണ് നിങ്ങളിങ്ങനെ ഹോട്ടൽ നടത്താനായിട്ടിരിക്കുന്നത് ഇപ്പോള് ആദ്യത്തെ അനുഭവമല്ല എനിക്കിത് രണ്ടാമത്തെ അനുഭവമാണ് നിങ്ങളെന്താണ് ഇങ്ങനൊക്കെ കാണിക്കുന്നത് ഒരു ഒരു കസ്റ്റമര് അവര് ഫുഡ് ഓർഡെര് ചെയ്യുന്ന സമയത്ത് അവരുടെ അതനുസരിച്ച് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങളങ്ങനൊന്നും ചെയ്തില്ലല്ലോ നിങ്ങള്ക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഞാൻ നിങ്ങളെ കയ്യില് കാശ് തന്നത്